ജോലിസ്ഥലത്ത് സംഘർഷം എന്ന് വച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എനിക്ക് സ്ഥിരമായിട്ട് പണിക്ക് വന്നൊരാളല്ല ഞാനിങ്ങനെ പടത്തോട് ചെയ്ത് നമ്മള് കാറ്ററിങ്ങ് പോലുള്ള ജോലികളാണ് ഞാൻ ചെയ്യുന്നത് അതിലെ സംഘർഷവും കാര്യങ്ങളൊക്കെ എന്താച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒരേപോലെ ജോലി ചെയ്താലേ അവിടൊരു പെട്ടന്ന് നമുക്ക് തീർത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോരാം വീട്ടിലേക്ക് പോരാനും എല്ലാം പറ്റുവൊള്ളു അതുകൊണ്ട് എല്ലാവരും ഒരു നല്ലൊരു സഹകരണം വേണം അതില് സംഘർഷമെന്ന് മെയിനായിട്ടൊര് സംഘർഷമെന്ന് വച്ച് കഴിഞ്ഞാല് അതില് എല്ലാവരും ഒരുപോലെ തന്നെ എഫർട്ട് ഇട്ട് ചെയ്യുക അതു മാത്രാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളതിൻറ്റൊരു സൂപ്പർവൈസർമാര് നമ്മളോട് ഹാർഷായിട്ട് നല്ല പെരുമാറുന്നതായിട്ട് നമുക്ക് ശ്രദ്ധേല് ഇങ്ങനെ പെട്ടിട്ടുണ്ട് നമുക്കൊരു മനസ്സ് മടിപ്പിക്കുന്നൊരു ഇതാണ് പക്ഷേങ്കില് നമ്മളെ സാഹചര്യം മനസ്സിലാക്കി നമ്മളവിടെ നിന്ന് നമ്മളത് നീറ്റായിട്ടെല്ലാം ചെയ്ത് അത് നമുക്കൊരു പിന്നീട് നമുക്കൊരു നല്ലൊരിതായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസായിരിക്കും ജോലിയെല്ലാം ചെയ്ത് പൈസ എല്ലാം ഉണ്ടാക്കിയതിൻ്റെ